ഞങ്ങളുടെ പ്രദേശത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സംസ്കാരങ്ങളൊക്കെ വളരെയധികം വ്യക്തിപരമായും സ്വാധീനം ചെലുത്തുന്ന കുറേ കാര്യങ്ങളാണ് രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നല്ല വ്ർ വൃത്തിയായി ഒരുങ്ങി യൂണീഫോമൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു ആ പ്രാർത്ഥിച്ച് സ്കൂളിൽ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു പരസ്പരം പരസ്പരം ഒരു ഒരു നി ന്യായമായൊരകലം പാലിച്ച് മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്നു പരസ്പരം ബഹുമാനിക്കുന്നു അദ്ധ്യാപകർ പറയുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നു ഷൂവും സോക്സും ഒക്കെ വളരെ വൃത്തിയായി കാലും നഖങ്ങളും ഒക്കെ നല്ല രീതിയിൽ വെട്ടി നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നു ഓരോ രീതി ഓരോ ക്ലാസ്സിലും എന്താണ് മൂല്യങ്ങളോ മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഞങ്ങളുടെ ആ ഞങ്ങളുടെ സമൂഹത്തിലുള്ളത് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാനത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഫലമാണ് ആ അതു കൊണ്ടു തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലൊത്തിരി നന്മകൾ ഇ ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ മേഖലയിൽ ജീവിച്ചതു കൊണ്ടു തന്നെ എനിക്കൊത്തിരി നന്മകൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ട് എന്നു ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ മറ്റൊരാൾടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വകാര്യതയെ ബഹുമാനിക്കുക അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വ്യക്തിപരമായ കാര്യങ്ങൾ സ്വന്തം കൈയ്യിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതകളെ സ്വയം ബഹുമാനിക്കാനും അത് പരസ്യപ്പെടുത്താനുള്ളതല്ല എന്നു ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും ഒക്കെ ഇപ്പോൾ സാധ്യമാകുന്നതിൻ്റെ ഒരു കാരണമെന്നു തന്നെ പറയുന്നത് നല്ലൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തെളിവാണ് ആ വെട്ട് മുന്നിൽ നിൽക്കുന്നയാളെ ഏറ്റവും ബഹുമാനത്തോടെ ബഹുമാനിക്കുവാനും പ്രായമായ ആൾക്കാർ കടന്ന് വരുമ്പോഴൊന്നെഴുന്നേറ്റ് നിൽക്കുവാനും അതു പോലെ തന്നെ അദ്ധ്യാപകരേ കാണുമ്പോൾ കൈ കൂപ്പി കൈകൂപ്പിയൊന്ന് ബഹുമാനം അല്ലേ കൈകൂപ്പി വന്ദനം പറയുവാനും കൈകൂപ്പി ഒന്ന് ആശ്വസിക്കുവാനുമൊക്കെ അല്ലെങ്കിൽ നല്ല ദിനം നേരാനുമൊക്കെ ഇത്തരം വിദ്യാഭ്യാസ ശൈലി കണ്ടെങ്കിൽ ഒരു സംസ്കാരം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം ഒരു സംസ്കാരമെന്നു പറയുന്നത് എല്ലാ കുട്ടികളിലുമുണ്ട് എല്ലാരിലും ഒരു നന്മയുണ്ട് ഈ നന്മകളൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എല്ലാ അദ്ധ്യാപകരും ചെയ്തതു കൊണ്ടാണൊത്തിരി നല്ല വിദ്യാർത്ഥികളിൽ നിന്നും നമ്മുടെ സമൂഹത്തിലുള്ളത് പലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടുള്ള കൊലപാതകം മദ്യപാനം കഞ്ചാവ് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വ്യാകുലതകളുണ്ടാകുമ്പോഴും അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളേറ്റവും വളരെ കുറഞ്ഞ ഒരു ശതമാനം മാത്രമാണ് അത്തരത്തിലുള്ളൊരു മേഖലകളിലേക്ക് കടന്നു പോകുന്നത് അവരുടെ കുടുംബ അന്തരീക്ഷം മുതലുള്ള കാര്യങ്ങളിതിന് വലിയൊരു കാര്യമാണ് കുടുംബാന്തരീക്ഷം എന്നു പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംസ്കാരം മാത്രമല്ല കുടുംബത്തിലുള്ള നമ്മുടെ സംസ്കാരമേറ്റവും ശ്രദ്ധേയമായി മാറുന്നതവിടെയാണ് കുടുംബത്തിലും നമ്മൾ വളർന്നു വരുന്ന രീതികളും നമ്മുടെ അപ്പനമ്മമാർ വഴി നമുക്ക് തലമുറകളായി കൈമാറി കിട്ടിയിരിക്കുന്നവരുടെ സ്വഭാവ ശൈലികളിൽ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസപരമായി നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പരാജയങ്ങളുണ്ടാകുന്നുണ്ട് ശരിക്കും നമ്മുടെ കുടുംബം അല്ലെങ്കിൽ കുടുംബപരമായി നമുക്ക് നല്ല മൂല്യങ്ങളുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സൗഹൃദങ്ങൾ പലപ്പോഴും നമ്മുടെ മൂല്യങ്ങളെ തണുപ്പിച്ചു കളയുക അല്ലെങ്കിൽ കെടുത്തി കളയുന്നതിൻ്റെ കാരണം തന്നെ കാരണം തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവ ബഹുലമായ ഒരു കാ കുറേ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നല്ലയൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഓരോ കുട്ടികളുടെയും ചിന്താ ശേഷിയെ സ്വാധീനിക്കുന്നൊരു ഘടകം തന്നെയാണ് ഇത്തരം ഘടകങ്ങളെ നമുക്ക് ബോധവത്ക്കരിക്കേണ്ടതായിട്ടുണ്ട് അദ്ധ്യാപകർ മുതൽ അദ്ധ്യാപകർ പെട്ടെന്ന് ക്ലാസ്സിൽ വന്നവർക്ക് തോ കുട്ടികളിൽ നിന്നെന്നും സൗമികാമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ വേണം അദ്ധ്യാപകർ ക്ലാസ്സിലോട്ട് വരാൻ ഏറ്റവും മാന്യമായി അദ്ധ്യാപകർ കുട്ടികളോട് പെരുമാറണം കുട്ടികളുടെ മുഖത്തുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതിയിലിഷ്ടപ്പെട്ടില്ല എന്നത് കൊണ്ട് അവർക്ക് എന്തും പറയാം അദ്ധ്യാപകർക്ക് എന്തും വിളിച്ച് പറയാനുള്ളൊരു അവസരമായി അവർ നമുക്ക് മേലെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് മേ തന്നെയാണദ്ധ്യാപകർ പക്ഷെ അദ്ധ്യാപകരൊരിക്കലും അവരുടെ സംസാരത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല അവരുടെ പെരുമാറ്റത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻറ്റൊരഭിപ്രായമെന്നു പറയുന്നത് അപ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികളെപ്പോഴും അദ്ധ്യാപകരെ ബഹുമാനിക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പം വിദ്യാർത്ഥികൾക്ക് തോന്നും വിധം കോളേ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പോകുക എന്നു പറയുന്നത് വളരെ വേദനാജനകമായൊരു കാര്യം തന്നെയാണ് അപ്പം ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സംസ്കാരത്തിൽ ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കുട്ടികളുടെ എണ്ണം ചുരുക്കമാണെങ്കിൽ കൂടിയും അവരുടെ പെരുമാറ്റ ശൈലികൾ ഉറപ്പായും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലം തന്നെയാണ് ഒപ്പം നല്ല മോശമായ രീതിയിൽ പെരുമാറുകയും ജീവിത രീതികൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് പോകുകയും ചെയ്യുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ വലിയ പോരായ്മ തന്നെയാണ് സംസ്കാരങ്ങൾ കുട്ടികളെ ഒത്തിരി അധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും